എൻ്റെ പ്രദേശത്തു മാത്രമായി ആഘോഷിക്കുന്ന കാലികമായ ഉത്സവം ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് വള്ളിയൂർ കാവ് ഉത്സവം തന്നെയാണ് പതിനാല് ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവമാണത് വയനാട് ജില്ലയിലും അയൽ ജില്ലകളിൽ നിന്നുമായി ഒരുപാട് പേർ പങ്കെടുക്കുന്നതും ഏറ്റവും ഉത്സവ പ്രതീതി തോന്നിക്കുന്നതുമായ ഒരു ഉത്സവമാണ് വള്ളിയൂർ കാവ് ഉത്സവം ജാതിഭേതമന്ന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഉത്സവത്തിൽ മനുഷ്യരുടെ ഒത്തൊരുമയും മത സൗഹാർദവും അതിൽ എടുത്തുകാണിക്കണ്ടതാണ്